ഇപ്പോൾ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ അതെ അതെ അല്ല ഇതുവരെയായിട്ടിവിടെ എത്തിയിട്ടില്ലാ ഞാൻ കുറേനേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല അല്ല ഞാൻ എട്ട് മണിക്ക് ഞാന് വരാൻ പറഞ്ഞതാണ് ഇതുവരെയായിട്ടും ക്യാബ് എത്തിയിട്ടില്ല അല്ല എന്തുകൊണ്ടാണ് വൈകുന്നത് അതൊന്നവരെ വിളിച്ച് നോക്കാൻ പറ്റുമോ അതെ ഓക്കെ വന്ന് വിളിക്കൂ അതെ ഹലോ ടയറ് പഞ്ചർ ടയറു പഞ്ചറായതാണെങ്കിൽ ഒന്ന് വിളിച്ചു ഇൻഫോം ചെയ്യാലോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഡ്രൈവർക്കൊന്ന് വിളിച്ചു നിങ്ങളെ ഇൻഫോം ചെയ്യാല്ലോ അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതെ അതെ അതെ അല്ല വേണ്ട ക്യാബ് ഇനി വരണമെന്നില്ല അല്ല വേറെ വണ്ടിയൊന്നും വരണമെന്നില്ല ഞാനിവിടുന്ന് ഏതെങ്കിലും വണ്ടി വിളിച്ചു പൊയ്ക്കോളാം അല്ലാ രാവിലെ എട്ട് മണീന്നു പറഞ്ഞിട്ട് ഇപ്പൊൾ സമയം ഒരു മണിയായി അല്ല വേണ്ട ഓക്കെ ഓക്കെ അല്ല ഇതിനി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ കൊടുത്തോളും അതെ അതെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ് അല്ലാ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതെ ശരി